ഇപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കെറ്റിൽ ആണ് കെറ്റിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചായ തിളപ്പിക്കാനും ഇപ്പോൾ ചൂടുവെള്ളം ഉണ്ടാക്കാനും കാപ്പി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം ആണ് അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു കാപ്പി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആവശ്യം വരും നമുക്ക് ഇപ്പോൾ എവിടെ എങ്കിലും ഒരു താമസിക്കുക ഒക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ഇപ്പോൾ ഗ്യാസ് നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ അതിനും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കെറ്റിൽ കാര്യങ്ങളൊക്കെയാണ് അതാണെങ്കിൽ നേരിട്ട് കറണ്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചൂടാക്കാനും കാപ്പി ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും എല്ലാം ഒക്കെ എല്ലാത്തിനും ഉപകാരമാണ് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറണ്ട് ചാർജ് കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പം കറണ്ട് ചാർജ് കൂടുതലായതുകൊണ്ട് പൈസയും ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കറണ്ട് ചാർജിൻ്റെ അ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്